എനിക്കേറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഗീതം ശാസ്ത്രീയ സംഗീതമാണ് അതാണ് എനിക്ക് ഇഷ്ടമുള്ള സംഗീതം നല്ല രീതിയില് ആസ്വദിച്ചിരിക്കാനായ്ട്ട് താല്പര്യമുള്ളത് ശാസ്ത്രീയ സംഗീതമാണ് മറ്റ് സംഗീതം ഇഷ്ടമില്ലാ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ശാസ്ത്രീയ സംഗീതമാണ് കൂടുതല് നമുക്ക് ആകാംക്ഷയോടും വളരെ ഇൻട്രെസ്റ്റോടുകൂടി കേൾക്കാനെനിക്കേറ്റവുമിഷ്ടം ശാസ്ത്രീയ സംഗീതങ്ങളാണ് ഇരുന്നുപോവും ആ സംഗീതങ്ങൾ മറ്റു സംഗീതങ്ങളെ അപേക്ഷിച്ച് ശാസ്ത്രീയ സംഗീതങ്ങളെയാണ് എനിക്ക് ഇഷ്ടം മറ്റ് മെലഡി ഇഷ്ടമാണെങ്കിലും ഇപ്പോഴത്തെ അടിച്ചുപൊളി മെലഡിയും മറ്റ് യുഗ്മഗാനത്തെക്കാളിലൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ശാസ്ത്രീയമായ സംഗീത ശാസ്ത്രീയ സംഗീതമാണ് അതിനൊരു പ്രത്യേകത എനിക്ക് അതിനോട് അതങ്ങനാണ് ഒന്നാമത് ഒരു സാധാരണ സംഗീതത്തെക്കാള് കൂടുതൽ സമയം ശാസ്ത്രീയ സംഗീതം പല ഭാവവർണ്ണ ഭേദത്തോടുകൂടി അത് അവതരിപ്പിക്കാൻ കഴിയുന്ന ഓ സമയദൈർഘ്യം ഒക്കെ എന്നെ കൂടുതലിതാക്കുന്നുണ്ട് വളരെ പിന്നേ അത് മറ്റ് പാട്ടുകളേക്കാൾ കൂടുതലായിട്ട് ചില സംഗീതജ്ഞന്മാര് വളരെ ത്രില്ഡായിട്ട് ഒരു സംഗീത സംഗീതജ്ഞൻ്റെ കഴിവ് ഒരു സംഗീത സംവിധായകൻ്റെ കഴിവ് ഗായകൻ്റെ കഴിവ് കൂടുതൽ പ്രകടമാക്കാൻ കഴിയുന്ന ഒന്നാണ് ശാസ്ത്രീയ സംഗീതം ഒട്ടനവധി കഴിവുകളെ ചെയ്യിക്കാന് പറ്റുന്ന ഒന്നാണ് ശാസ്ത്രീയ സംഗീതം എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ശാസ്ത്രീയ സംഗീതത്തെ കൂടുതൽ ഇഷ്ടമായി വരുന്നത് അതുകൊണ്ട് ശാസ്ത്രീയ സംഗീതത്തെ ഞാൻ ഏറ്റവും കൂടുതല് ഇഷ്ടപ്പെടുന്ന അതിനാണ് അതാണ് പ്രധാനമായ എൻ്റെ കാരണം അതുകൊണ്ട് ശാസ്ത്രീയ സംഗീതമാണ് ഒരു കലാകാരൻ്റെ കഴിവുകളെ മറ്റ് പാട്ടുകളെ അപേക്ഷിച്ച് കൂടുതൽ പ്രകടമാക്കാൻ കഴിയുന്ന ഒന്നാണ് ശാസ്ത്രീയ സംഗീതം അതുകൊണ്ടാണ് ശാസ്ത്രീയ സംഗീതത്തെ ഞാന് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുവാൻ കാരണം